ഹലോ ഊബര് അല്ലേ ഞാനാണെങ്കില് നേരത്തെ ഒരു ക്യാബ് ബുക്ക് ചെയ്താരുന്നു അപ്പോള് അത് ക്യാൻസൽ ആക്കാനായിട്ട് വിളിച്ചതാണ് അത് ക്യാൻസൽ ആക്കി എനിക്കിപ്പോള് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ക്യാൻസൽ ആക്കുന്നേ അപ്പോള് ഫണ്ട് ഒന്ന് റീഫണ്ട് ചെയ്യാമോ അയ്യോ അതെന്നാ റീഫണ്ട് ബുക്ക് ചെയ്ത് അത് ബുക്ക് ചെയ്തിട്ട് വരുന്നത് അത് ക്യാന്സല് ആയി എനിക്ക് പോകണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാന് ക്യാന്സല് ആക്കിയതല്ലേ അതെന്റെ ഇഷ്ടമല്ലേ നിങ്ങള് പൈസ ഞാനതിന്റെ രണ്ടായിരം രൂപ അഡ്വാന്സ് തന്നയല്ലേ അതെനിക്ക് തിരിച്ചു തരണം ജി പേ വഴി അയച്ചാലും മതി അല്ല ജി പേ വഴി അയക്ക് എന്റെ നമ്പരുണ്ടല്ലോ ഞാന് അതില് തന്നെയല്ലേ അയച്ചു തന്നത് അത് അതില് അയച്ചാല് മതി അതെനിക്ക് ഇപ്പോള് എനിക്കിപ്പോള് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഇല്ല അതുകൊണ്ട് അത് ക്യാൻസൽ ആക്കുന്നേ അതെനിക്ക് ഇപ്പോള് പൈസ അയച്ചു താ അല്ലെങ്കില് അക്കൗണ്ടിലോട്ട് ആയിരുന്നാലും അയച്ചു തന്നാല് മതി ബാങ്ക് അക്കൗണ്ടിലോട്ട് അയച്ചു തന്നാലും മതി എന്ത് എങ്ങനെയാണെങ്കിലും എനിക്ക് പൈസ ഇന്ന് തിരിച്ചു കിട്ടണമായിരുന്നു ഇല്ലാ എനിക്കിന്നത് എനിക്കത് വേണം പൈസ ബാക്കി ഞാന് രണ്ടായിരം രൂപ അഡ്വാന്സ് തന്നയല്ലേ അപ്പോള് എനിക്ക് ബാക്കി പൈസ വേണം അത് എന്നാ എന്റെ അക്കൗണ്ട് ഫോൺപേ ഇല്ലെങ്കിൽ എന്നാ എന്റെ അക്കൗണ്ടിലോട്ട് അയച്ചു തന്നാലും മതി അക്കൗണ്ട് നമ്പറോ ഇല്ല ഞാന് ഫോണ് പേ ഫോണ് പേ വഴിയോ എങ്ങനെങ്കിലും എനിക്ക് ഒന്ന് അയച്ചു തന്നാല് മതി പൈസ അയക്കാ മതി ബാക്കി ആഹ് ആഹ് അതെ ആഹ് രണ്ടായിരം രൂപാ അയച്ചാല് മതി ആ ഡ്രൈവറിന് ഡ്രൈവ് ഞാന് ഓള്റെഡി അത് ക്യാന്സല് ചെയ്തായിരുന്നു പിന്നെ ഇല്ല ഇല്ല അയച്ചേക്ക് ഇങ്ങോട്ട് തന്നെ അങ്ങ് അയച്ചേ